കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നൃത്തങ്ങൾ മാറിനൊന്നും കരുതുന്നുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നൃത്തംന്ന് വെച്ചുട്ടുണ്ടെങ്കിൽ ആദ്യ ആദ്യകാലത്തൊക്കെ വെച്ചുകഴിഞ്ഞ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി പിന്നെ ക്ലാസ്സിക്കലായിട്ടുള്ള ഒരുപാട് നൃത്തങ്ങളുണ്ട് അതുപോലെ തിരുവാതിര അങ്ങനത്തെതൊക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഫോക്ക് ഡാൻസ് അങ്ങനത്തെ അങ്ങനെയുള്ളതൊക്കെയാണ് പിന്നെ ഡി ജെ പോലുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഡാൻസ് അങ്ങനെത്തോനൊക്കയാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടുതലും താൽപര്യം ഇപ്പോൾ പഴയതായിട്ടുള്ള മോഹിനിയാട്ടം അതായത് ക്ലാസ്സിക്കൽ ഡാൻസിനോടൊന്നും ആർക്കും വലിയ താൽപര്യമില്ല പക്ഷേ താൽപര്യമുള്ള ആൾക്കാരും ഉണ്ട് ഇഷ്ടംപോലെ പക്ഷേ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ താൽപര്യങ്ങളുള്ളവരൊക്കെ വളരെ കുറവാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയവയിൽ നിന്ന് വ്യത്യാസംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മെന്തെ മോഹിനിയാട്ടം തിരുവാതിര കഥകളിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിങ്ങിലൊക്കെ നല്ല അടക്കോം ഒതുക്കോം ഉള്ള ഡ്രസിങ്ങാണ് പക്ഷേ ഇപ്പൊഴത്തെ ഫോക്ക് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡ്രസ്സിങ് ഒക്കെ വളരെ മോശമാണ് അത്രനല്ല ഡ്രസ്സിങ്ങോന്നും അല്ല അപ്പം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ ആ അതൊക്കെ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഓ ഓ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപെ ഇത് ഈ വർഷം ഇപ്പം ഉള്ള കാലത്തെ കാലത്തിൽ നൃത്തങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ